ഇത് വെന്നീസ് റസ്റ്റോറന്റ അല്ലേ ഹാ ഞാന് ഒരു നമ്മടൊരു ഉത്സവത്തിന്ടെ ഒരു ആവശ്യത്തിനു വേണ്ടിയിട്ടായിരുന്നെ നമ്മളമ്പലത്തില് കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കാന് വേണ്ടിയിട്ടായിരുന്നു ആ അതെ അതെ അതെ അപ്പോൾ അതിന് നിങ്ങള്ടടുത്ത് അത്യാവശ്യം മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടോന്നറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാന് വിളിച്ചത് ആ നിങ്ങളുടെ ബേക്കറിയിലേക്കല്ലേ ആ ഓക്കേ ഓക്കെ അവിടെയെല്ലാം അവൈലബ്ളായിട്ടുണ്ടോ ആ ഓക്കെ ഓക്കെ അപ്പോൾ അതിനെന്തെങ്കിലും ഓഫറുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടല്ലേ ഓക്കേ ആ ഇപ്പോൾ ഒന്നാമത് പൂജാ ഹോളിഡേയ്സ് ഒക്കെ അല്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്തുണ്ടാവല്ലോ അതാ വിളിച്ചു നോക്കിയത് ആ ആ ഓ ഓക്കെ ആ എന്നാല് ഒന്ന് പ്പൊ അയച്ചു തരുവൊ ഒന്ന് ഓക്കെ ഞാന് ലൊക്കേഷന് ഞാന് വാടസ്ആപ്പ് ചെയ്തേക്കാം ഓക്കെന്നാ